ആ നമസ്കാരം വരൂ ഇരിക്കൂ ആ ആ എന്താണ് വേണ്ടത്

ആ ഓക്കേ ഇപ്പോൾ പത്താം ക്ലാസ് ഇപ്പം എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക എ പ്ലസ് ഫുൾ എ പ്ലസ് ഒക്കെ ആയിട്ടാണോ ആ ഓക്കേ ഇപ്പം ഐ ടി ആണ് താൽപര്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്ലസ് ടു എടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതി പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക അതിൽ മാത്സും ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ ആ അപ്പം അതിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതി എല്ലായിടക്കും കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്യുക ഒരു വിധം അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ് അങ്ങനെ എടുക്കാൻ പറ്റും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആ വഴിക്ക് പോവുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻട്രൻസ് എഴുതേണ്ടി വരും സാധാരണ എല്ലാവരും കോച്ചിംഗിന് ഒക്കെ പോയിട്ടാണ് എഴുതാറ് അങ്ങനെ എഴുതിയാൽ അങ്ങനെ കോച്ചിംഗിന് പോവാണ്ട് തന്നെയാണ് അത് കോച്ചിംഗിന് പോവേണ്ടി വരും അപ്പം അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എഴുതുക എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ട് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലത്തെ കോഴ്സുകൾ ഒക്കെ ഉണ്ട് അപ്പം അത് എടുത്ത് കഴിഞ്ഞാൽ ഐ ടി മേഖല ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കോഴ്സിലേക്കും പോവാൻ പറ്റും പിന്നെ കൂടുതൽ ഇതിൽ നമുക്ക് പഠിക്കുന്നത് ഇപ്പോൾ ഐ ടി ആയിട്ട് കുറച്ചും കൂടെ പഠിക്കാൻ കൂടുതൽ താൽപര്യം ഉണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ലാംഗ്വേജുകൾ ഒക്കെ ഉണ്ട് ഇപ്പം രണ്ട് മൂന്ന് ജാവ സി പ്ലസ് പ്ലസ് പൈത്തോൺ അതുപോലത്തെ ലാംഗ്വേജുകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് ഈ വെക്കേഷൻ സമയത്ത് ഇപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും അത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഓൺലൈൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നുണ്ടാവും രണ്ട് മാസമോ അങ്ങനെ ഒക്കെ ആയിട്ട് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ഫ്രീ ടൈം ശനിയും ഞായറും ആയിട്ട് പോവാൻ പറ്റും അങ്ങനെ അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന്റെ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആ ആ ഫീൽഡിലേക്ക് പോവുമ്പോൾ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തും നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ആയിരിക്കും കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഓൾറെഡി ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ടാവും ആ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ അതിന്റെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ആ കുറച്ചും കൂടെ നമുക്ക് അത് എളുപ്പമായിരിക്കും ഇനി നമ്മൾ ഇപ്പം ഇന്ത്യയിലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഐ ടി കമ്പനികൾ ഇപ്പോൾ ബാംഗ്ലൂർ പിന്നെ ചെന്നൈ ഹൈദരാബാദ് അങ്ങനെയാണ് കൂടുതലായിട്ടും പിന്നെ കൊച്ചി തിരുവനന്തപുരം കേരളത്തിൽ ആണെന്ന് പറഞ്ഞാൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കുറച്ച് ഏരിയകളിലായിട്ട് അതായത് നമ്മുടെ സെൻ്റർ ഇത് ഉണ്ടാവുമല്ലോ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഐ ടി കമ്പനികൾ ഉണ്ടാവുക അപ്പം നമ്മൾ ഇപ്പം ഇവിടെനിന്ന് പാലക്കാടുനിന്ന് അവിടെ പോയി താമസിച്ച് നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറാവണം നമ്മള കൂടെ കുറേ കുട്ടികൾ ഇതിന് വേണ്ടി പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റില്ലെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ ആ ജോലി എടുക്കില്ല അപ്പോൾ നമ്മൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയണം ഇതാണ് താൽപര്യം ഇപ്പം പഠിച്ച് ജോലി അവിടെയാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ വെറുതെ പഠിച്ചിട്ട് കുറേ കുറേ പഠിച്ചതുകൊണ്ടും കാര്യം ഇല്ലല്ലോ അപ്പം നമ്മൾ ആദ്യം വീട്ടിൽ പറഞ്ഞാൽ അച്ഛാ ഇങ്ങനെയാണ് പഠിക്കാൻ താൽപര്യം അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം എന്തായാലും പഠിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെയേ ജോലി കിട്ടൂള്ളൂ അപ്പം അവിടെ പോയി പിന്നെ സമ്മതിക്കാണ്ട് ഇരിക്കരുത് അതുകൊണ്ട് ആണ് മുൻകൂട്ടി പറയുന്നതെന്ന് അച്ഛന്റെ സമ്മതം പെർമിഷൻ ഒക്കെ മേടിക്കുക നേരത്തെ തന്നെ ആ ഓക്കേ അപ്പോൾ ഇനി ഇപ്പം എന്തായാലും ഞാൻ ഒരു നാലഞ്ച് ദിവസത്തിന് ഉള്ളിൽ പ്ലസ് ടൂന്റെ ആപ്പ്ളിക്കേഷൻ കൊടുക്കാൻ തുടങ്ങുന്നുണ്ടാവും അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സയൻസിന് ആദ്യം അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഇതിന് എൻട്രൻസിന് പഠിക്കാനും തുടങ്ങുക പ്ലസ് ടൂന്റെ അതേ സിലബസ് തന്നെയാണ് എൻട്രൻസിനും ഉള്ളത് അപ്പോൾ അത് രണ്ടിനും ഒരുമിച്ച് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എക്സാം എഴുതുമ്പോൾ ഈസി ആയിരിക്കും പ്ലസ് ടു പാസ് ആവണമെന്നുള്ള ഇതിന് മാത്രം അല്ല എൻട്രൻസിന് നല്ല മാർക്കോട് കൂടി പാസ് ആവണമെന്ന് ഉള്ള ലക്ഷ്യത്തോട് കൂടി പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല റാങ്കും കിട്ടും അത് അപ്പോൾ ഗവൺമെന്റ് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഫീസ് ഒന്നും ഇല്ല വലിയ ഫീസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പഠിക്കാനും പറ്റും സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കേ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ വന്നോളൂ കേട്ടോ